ആ ഹലോ സെൻ്റ് മേരീസ് മോട്ടോർസ് അല്ലേ അത് കണ്ടക്ടറാണോ എനിക്കൊരു സീറ്റ് ചെഞ്ചിങ്ങിന് വേണ്ടി ഒരു ആവശ്യമുണ്ടായിരുന്നെ അതിന് വേണ്ടി വിളിച്ചതായിരുന്നെ എൻ്റെ പേര് ജിതിൻ കെ വർഗീസ് ഞാ ആ ആ വൈകിട്ട് ഞാനൊരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞിരുന്നത് ആ ഇടുക്കി ടു കോഴിക്കോട് ആ മൂന്നു പേർക്ക് സീറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾക്ക് ആ സീറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും ബാക്കിലായിട്ടാണ് കിട്ടിയത് പക്ഷെ അതിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ന് മറ്റെ ആപ്ലിക്കേഷനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് സെൻറ്ററില് മൂന്ന് സീറ്റ് അവൈലബിൾ ആയിട്ട് കണ്ടു അപ്പം നമുക്ക് ആ ക്യാൻസലേഷൻ വന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ സീറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് ഫ്രീ ആയിട്ട് കണ്ടപ്പം അതിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പം അതിലൊരു മൂന്ന് സീറ്റ് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുവോ ഇപ്പം ആ ഓക്കെ ഓക്കെ അത് ഇട്ട് തരാം ഇട്ട് തരാം എൻ്റെ പേര് മനസ്സിലായില്ലെ ഞാൻ ജിബിൻ കെ വർഗീസ് എന്നാണ് പേര് അപ്പം ഞാന് ഫാമിലി എൻ്റെ വൈഫ് ഉണ്ടാകും എൻ്റെ ഒരു കൊച്ചുണ്ടാവും ഞങ്ങള് മൂന്ന് പേരാണ് ഉള്ളത് കൊച്ചിന് പ്രായം പത്ത് പത്ത് വയസ്സ് മൂത്ത് പ്രായ കൂടുതലുണ്ടാകും അതുകൊണ്ട് സെപ്പറേറ്റ് സീറ്റ് എടുക്കേണ്ടി വരുവായിരിക്കും അല്ലേ ആ ഓക്കെ പേമെൻ്റ് ഫുള്ള് ചെയ്തായിരുന്നു ഫുൾ പേമെൻ്റ് ചെയ്തായിരുന്നു ഫുൾ പേമെൻ്റ് ചെയ്തായിരുന്നു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടത് ഞാൻ വേണെൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരാം ഓക്കെ അയച്ച് തരാം ആധാർ കാർഡ് ഞാൻ അയച്ചേക്കാം

വേറെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടില്ലേ സൈഡിലായിട്ട് ആ ഓക്കെ നമുക്ക് ഇപ്പം നാല് പേരുടെ സീറ്റാണല്ലോ പറഞ്ഞത് അതിനകത്ത് മൂന്ന് പേര് ഇടക്ക് വെച്ച് ആരേലും നമ്മുടെ സീറ്റിലേക്ക് സെൻറ്ററിലേക്ക് വരുവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇടക്ക് ആ ഓക്കേ ഇതിന് താ വളരെ ഉപകാരമുണ്ട് കെട്ടോ താങ്ക്യൂ ഓക്കെ